എട്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി എണ്ണുറ്റി എൺപത്തിഎട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാല് ലക്ഷത്തി നാപ്പത്തി നാലായിരത്തി നാഞ്ഞൂറ്റി നാപ്പത്തി നാല് അഞ്ച് ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല്